പണ്ട് ആദ്യ ആദ്യമെല്ലാം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ വലിയ എന്നാൽ ഒരു വെള്ളമുണ്ട് നാല് കമ്പേലിങ്ങനെ കെട്ടി മുറ്റത്ത് കെട്ടി ഇങ്ങനെ വെള്ളം എന്നിട്ടൊരു കു ഇങ്ങനെ ഇച്ചരെ കുഴി പോലെ അ മിട്ടിട്ട് ആവെ അവിടെ വെള്ളം ഇങ്ങനെ മഴവെള്ളമങ്ങനെ അകത്തു വന്നിട്ട് അടീന്നല്ല വലിയ വിസ്താരമുള്ള പാത്രം വെച്ചേക്കും അങ്ങനെ ആ പാത്രം നിറയുമ്പോൾ അതിനകത്തു നിന്നു മാറ്റി മാറ്റി വേറെ അകത്തു കൊണ്ടു പോയി നിറച്ചു വെച്ചിട്ട് പിന്നെ അതങ്ങനെ നിറച്ച് നിറച്ചെടുക്കും പിയാ അതു ഭയങ്കര നല്ല മഴ വെള്ളമാണ് കാരണം മഴവെള്ളം നേരെ വരുന്നു മുണ്ടേലോട്ടു വീഴുന്നു അതരിച്ചു പാ താ താഴച്ചീന്ന് പാത്രത്തിൽ വീഴുന്നു അതു നമ്മൾ പലപല പാത്രങ്ങളിലാക്കി ശേഖരിച്ചു വെയ്ക്കുന്നു അതു കഴിഞ്ഞപ്പോളാണ് പിന്നെ മഴവെള്ള സംഭരണി വന്നു മഴവെള്ള സംഭരണിക്കകത്ത് നമ്മളീ ഇതിന്റെ വു ആവശ്യമില്ലാ അതിനകത്തു തന്നെ ശുദ്ധി ചെയ്തു വരാനുള്ള എല്ലാ സംവിധാനങ്ങളോടു കൂടിയാണ് അവർ ചെയ്തു വെച്ചിട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് അതു നല്ല വാട്ടറാണ് എങ്കിലും അതു കഴിഞ്ഞ് വാട്ടര് പ്യൂരിഫയറില് നമ്മുടെ വീടിനകത്തുള്ളതും ഉണ്ട് എങ്കിലും കുടിക്കാനുള്ള ജലം എപ്പോഴും ഞങ്ങൾ തിളപ്പിച്ചാറിച്ചാൽ വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ എന്തു ചെറിയ കാ കാര്യവരുവാണ് പോലും നമ്മൾ വായ് അസ് വയ റ്റി ചെന്നിട്ട് നമുക്കൊരു പല പല അസുഖങ്ങൾ വരുമല്ലോ വെള്ളത്തിൽക്കൂടി പല പല അസുഖങ്ങൾ നമുക്ക് വരാറുണ്ടല്ലോ വയറിളക്കം വയ പിന്നെ കോളറാ പിന്നെ അതുപോലെ പല അസുഖങ്ങൾ വരും അതുകൊണ്ട് എപ്പോഴും വെള്ളം തിളപ്പിച്ചാറിച്ചു കുടിക്കുന്നതാണേറ്റവും നല്ലത് ഞങ്ങളാ രീതിയാണ് കുടിക്ക് കുടി വെള്ളം എപ്പോഴും തിളപ്പിച്ച വെള്ളമാണ് കു കുടിക്കുന്നത് പിന്നെ വ മറ്റാവശ്യങ്ങള്ക്കാണെങ്കിലും മഴവെള്ള സംഭണിക്കകത്തു നിന്ന് നല്ല വെള്ളം തന്നെയാണല്ലോ വരുന്നത് അതു ഭക്ഷണ സാധനങ്ങള്ക്കും ഭഷ്ണം ഉണ്ടാക്കാനും അങ്ങനെ ഒക്കെ കുളിക്കാനും ഒക്കെ ആം മഴവെള്ള സംഭരണിയിലെ വെള്ളമാണെടുക്കുന്നത് പിന്നെ ടാപ്പ് വാട്ടറുമുണ്ട് എങ്കില് കൂടിയും ഞങ്ങളേറ്റവും കൂടുതലുപയോഗിക്കുന്നത് മഴവെള്ളസംഭരണിയിലെ വെള്ളം തന്നെയാണ് കാരണം ആറു മാസം സൂപ്പറായിട്ട് മഴവെള്ളസംഭരണിയില് ഫുള് എപ്പോഴും ഫുള്ളായിട്ടിരിക്കും ആറ് മാസം മിക്കവാറും നമുക്ക് മഴ ഉണ്ടല്ലോ ഇല്ലെങ്കില് പോലും ഇടക്കൊരു വേനല് മഴയൊക്കെ വരുമ്പം തന്നെ മഴവെള്ളസംഭരണി ഇരുപത്തിയാറ് ലിറ്ററിന്റെ മഴവെള്ളസംഭരണിയാണ് അതൊരു മുക്കാല് ലിറ്ററൊക്കെ നമുക്ക് രണ്ടു മൂന്ന് മഴ അടുപ്പിച്ചു കിട്ടുവാണേ ഫുള്ളായി ഫുളളാകും മഴവെള്ളസംഭരണി അങ്ങനെ നന്നായിട്ട് അതുപയോഗിക്കാൻ പറ്റുന്നു അങ്ങനെയൊരു സംവിധാനമൊക്കെ ഉണ്ടായത് ഭയങ്കര എല്ലാവര്ക്കും തന്നെ ഭയങ്കര ഒരു സൗകര്യപ്രദമാണ് അത് എനി എല്ലാവര്ക്കും ഉപയോഗിക്കാനും വെള്ളം ഇല്ലാത്തത് എത്ര വെള്ളം ഇല്ലാത്തവര്ക്കും മഴവെള്ളസംഭരണിയുണ്ടെങ്കില് കുറച്ചു നാളത്തേക്ക് ആരുടെയും അടുത്തുപോയി വെള്ളം കോരാനോ അല്ലേ ഒന്നും വ് വെള്ളത്തിനു ബുദ്ധിമുട്ട് വരത്തില്ല അങ്ങനെ ആ ഒരു സംവിധാനം എല്ലാം കൊണ്ടും ഒരനുഗ്രഹപ്രദമാണ് താങ്ക് യൂ